ഉം വരൂ ഇരിക്കൂ ആ ഒരു ജീവൻ സുരക്ഷ പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലേക്ക് ഉള്ളവർക്കാണ് ഇത് ചേരാൻ അത് വന്നിട്ട് മൂന്ന് വർഷം പതിനഞ്ച് വർഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ്

മൂന്ന് വർഷം നമ്മള് കണ്ടിന്യൂ അടക്കണം മുമൂന്ന് മാസം കൂടുമ്പോഴാണ് അടവ് മൂന്ന് വർഷം നമ്മള് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇത് നില നിൽക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങള് അടച്ച പൈസ പോകും

അടക്കണം അല്ല അല്ല മൂന്ന് മൂന്ന് മാസം കൂടുമ്പോഴാണ് അടക്കേണ്ടത് അത് മൂവായിരം രൂപ

അല്ല മു മൂന്നാം മാസം മൂവായിരം മൂവായിരം വെച്ച് അടയ്ക്കണം നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസാണ് കിട്ടുന്നത് അത് വന്നാൽ ഇത് നല്ലോരു സ്കീം കൂടിയാണ് അത് മൂന്ന് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇൻസെൻറ്റീവ് പോലെ നിങ്ങൾക്ക് ഒരു പൈസ ഇതിൽ നിന്ന് കിട്ടും പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങളുടെ ഫീസൊക്കെ കാലാവധി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തരും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ അല്ലേ കൂടുന്നത് അത് പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് കയ്യിൽ തരും അക്കൗണ്ട്ലേക്ക് ഇട്ട് തരും അല്ല അല്ല അത് ഒറ്റ ഒറ്റ പ്രാവശ്യം തന്നെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളെ ഈ ബോണ്ട് വഴി വന്ന് കഴിഞ്ഞ ചേർന്ന ബോണ്ട് ഉണ്ടാവുല്ലോ അതുമായിട്ട് വന്ന് കഴിഞ്ഞാ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ അക്കൗണ്ടില് കയറും ഉം പതിനഞ്ച് ലക്ഷം ആ മൂന്ന് മാസം കൂടുമ്പോൾ മൂവായിരം ഈ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം നിങ്ങൾക്ക് അതിൻ്റെ പൈസ നിങ്ങൾക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് തരികയും ചെയ്യും കൊടുക്കണമെങ്കിൽ നിങ്ങള് ഡോക്ടർ സർട്ടിഫിക്കറ്റായിട്ട് വരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റായിട്ട് ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങിക്കണം ഇന്ന കാരണം കൊണ്ട് എനിക്ക് മുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പുതുക്കി കൊണ്ട് പോകാം പക്ഷെ അതിനൊരു ചെറിയ ഇൻറ്റെറെസ്റ്റ് വരുന്നുണ്ട് അത് കൂട്ടി അടക്കണം ഇൻറ്റെറെസ്റ്റ് ഉണ്ടാവും അതെ അതെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് വയസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റൊ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ അത് കൊണ്ട് വരണം വയസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പാൻ പാൻ കാർഡ് വേണം ബാങ്ക് പാസ്സ്ബുക്ക് ഇപ്പോൾ വേണ്ട അത് പിന്നീട് തന്നാൽ മതി അല്ല അല്ല ഫസ്റ്റ് ചേരുമ്പോൾ മൂവായിരം രൂപ ആദ്യം ഒരു അടവ് അടയ്ക്കണം ഉം ഉം അതെ ഇത് നിങ്ങള് നാളെ കൊണ്ടുവന്നിട്ട് ഇത് കോപ്പിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ ശരിയാക്കി തരാം അല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ ലീവാണ് നാളെ തന്നെ വന്നോളൂ ഓ ശരി ശരി